ഹലോ ഞാൻ ഹർഷയാണ് സംസാരിക്കുന്നത് ഇത് ഓല ട്രാവൽ ഏജെൻസിയല്ലെ ഞാൻ നിങ്ങളുടെ ട്രാവൽ ഏജെൻസിയിൽ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നേരം വരെയും ക്യാബ് ഡ്രൈവർ ഇവിടെ എത്തി ചേർന്നിട്ടില്ല അതെന്താണെന്നറിയാൻ ആണ് ഞാൻ നിങ്ങളുടെ ട്രാവൽ ഏജെൻസിയെ കോൺടാക്റ്റ് ചെയ്തത് ഞാനും എൻ്റെ കുടുംബാ ങ്ങൾക്കൊത്ത് ഒപ്പം എന്താ വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി തൊട്ട് ഞാൻ ക്യാബ് ഡ്രൈവറേനെ വിളിച്ചു തുടങ്ങിയതാണ് പക്ഷേ ഒരു കാരണവശാലും ആൾ വിളിച്ചിട്ട് ഫോണൊന്നു എടുക്കണില്ല എന്തുകൊണ്ടാണ് ആ ആളേനെ വിളിച്ചിട്ട് ഫോണൊന്നു എടുക്കാത്തതെന്ന് അറിയാൻ ഞാൻ താത്പര്യപ്പെടുന്നു കാരണം എന്താ ഇത് നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ ഏജെൻസിയിൽ നിന്നു വന്ന ഒരു പിഴവാണ് കാരണം കറക്റ്റ് സമയവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നു പത്തു മണിക്ക് പോകണമെന്നു ഇന്നൊൻപതേ മുക്കാലായി ഇനി പതിനഞ്ച് മിനിറ്റ് കൂടിയേ ഉള്ളു ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ട്രെയിനുണ്ട് അപ്പോൾ ഇതെന്താണ് ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പിഴവു വരാൻ പാടില്ലായിരുന്നു അപ്പം അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ എത്രയും പെട്ടെന്നു തന്നെ ആ ക്യാബ് ക്യാബ് ഡ്രൈവറിനെ വിളിച്ചിട്ട് എന്താണ് കാര്യമെന്നു അന്വേഷിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ ഞാൻ കമ്ബ്ലെയ്ൻട് ഉയർത്തും പിന്നെ എന്തായാലും ഇനി നിങ്ങളുടെ ഭാ നിങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ക്യാ എന്താ ട്രാവൽ ഏജെൻസീനെക്കുറിച്ചെത്തിക്കില്ല കാരണം ഇത്ര ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്തായാലും അപ്പം ഞാൻ നിങ്ങളോടു പറയുകയാണ് എന്തായാലും എത്രെയും പെട്ടെന്ന് തന്നെ ഒന്നല്ലെങ്കിൽ എനിക്ക് വേറൊരു ക്യാബ് ഡ്രൈവറെങ്ങനെ ക്യാബ് ഇവിടെ എത്തിച്ചു തരിക അല്ലയെന്നുണ്ടെങ്കിൽ ആൾ തന്നെ വി വിളിച്ച് എന്തുകൊണ്ടാണ് ഇതുണ്ടായതെന്ന് എന്തായാലും എനിക്കതറിയണം നിങ്ങളെത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ ഞങ്ങളടച്ച തുക ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഈ ക്യാബിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു തുക അടച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും തിരിച്ചു കിട്ടണം അപ്പോൾ എത്രയും പെട്ടെന്നു തന്നെ നിങ്ങൾ കാര്യങ്ങൾ എന്താണെന്നു വെച്ചാൽ അത് അന്വേഷിച്ച് വേഗം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു